ഹലോ വെണ്ണമ്മറോ റെസ്റ്റേറെൻ്റല്ലേ എനിക്ക് ഒരു നാല് ബിരിയാണി വേണമായിരുന്നു നിങ്ങള് സ്റ്റേഡിയത്തിലല്ലേ നിങ്ങളുടെ സ്ഥാപനം ഉള്ളത് പാലക്കാട് സ്റ്റേഡിയത്തിലല്ലേ അപ്പോൾ എനിക്ക് ഒരു നാല് ബിരിയാണി വേണമായിരുന്നു നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് എൻ്റെ ലൊക്കേഷൻ വന്നത് താരേകാടാണ് അപ്പോൾ ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും എത്തിക്കൂ കേട്ടോ